ബൈക്കിങ് എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ് ബൈക്ക് ഓടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ അത് പിന്നെയും പിന്നെ ഓടിക്കാനുള്ളൊരു തൊര വരുകയും പിന്നെ അത് എവിടെ ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് കൂടെയെങ്കിലും അതിൽ എന്താണ് വണ്ടിയിൽ കയറിയിട്ട് ഒന്ന് പോകാൻ നമുക്ക് ഇടക്ക് ഇടക്ക് തോന്നും അത് ഓരോവട്ടം ഓടിക്കുമ്പോഴും പിന്നെയും പിന്നെ അത് ഓടിക്കാനുള്ള ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ബൈക്കിങ്ങിന് ബൈക്കിങ് അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ കൂടുതൽ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് മഴയും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബൈക്ക് തന്നെയാണ് നല്ലത് എന്താണ് പെട്രോളിന്റെ ക്യാഷ് ലാഭിക്കാം അതേപോലെ തന്നെ അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ് കൊണ്ട് കീപ്പ് ചെയ്തിട്ട് പോകാം അതുപോലെ തന്നെ ഈ വണ്ടിയിൽ പോകുന്ന ബൈക്കിങ് ചെയ്യുന്ന സമയത്ത് പല എന്താണ് ഹെൽമെറ്റ് ധരിക്കും പിന്നെ അതുപോലെ തന്നെ കയ്യൊറ എന്താണ് ലോങ് ഒക്കെ യാത്ര പോകുകയാണെന്ന് ഉണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിന് അനുസരിച്ചിട്ടുള്ള എന്താണ് മുൻകരുതലുകൾ ഒക്കെ എടുത്തിട്ടാണ് പോകുക ബൈക്കിങ് എന്താണ് ഓരോട്ടം ചെയ്യുമ്പോൾ അതിനോടുള്ളൊരു ലഹരി അത് ലഹരി പോലെ എടുക്കാനും കൂടുതൽ അതേപോലെ വരും എത്ര പോയാലും പിന്നെയും പോകുകയാണെന്ന് തോന്നും അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് ബൈക്ക് വളരെ ഇഷ്ടമായത് പിന്നെ എന്താണ് ബൈക്ക് ഓടിച്ച് ഒരു ടു വീലേഴ്സ് ഓടിക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു എന്ത് അതാണ് എന്താണ് ബൈക്ക് സ്കൂട്ടി തുടങ്ങിയതൊക്കെ ഇപ്പോൾ സ്വന്തം സൈക്കിളിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പറ്റുകയുള്ളൂന്ന് ഒക്കെ ചിലർ പറയും പക്ഷേ ബൈക്ക് സൈക്കിൾ ഓടിക്കാത്ത എന്ത് ബൈക്കിൽ ഡയറക്ട് പോയി പഠിച്ചവരൊക്കെ ഉണ്ട് സ്കൂട്ടി പഠിച്ചവർ എന്താണ് അതൊക്കെ കൊണ്ട് അത് ഒരു വട്ടം ഓടിച്ച് നമുക്ക് കഴിയും ബാലൻസ് കിട്ടുന്ന നമുക്ക് ഒരു ഉറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ അത് ഓടിക്കാനുള്ളൊരു ആകാംക്ഷ നമുക്ക് കൂടും അതുകൊണ്ട് തന്നെയാണ് എന്താണ് ബൈക്കിങ് കൂടുതലായിട്ട് ആരംഭിക്കാൻ തുടങ്ങിയത് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും തുടങ്ങിയതാണെങ്കിലും പിന്നീട് എന്താണ് പിന്നെ അതിലോട്ട് ഇങ്ങനെ പോകാനുള്ള എന്താണ് ഒരു കോൺഫിഡൻസ് കിട്ടി ആ കോൺഫിഡൻസ് കൊണ്ടാണ് പിന്നെ പിന്നെ എന്താണ് ബൈക്കിങ് ചെയ്യുന്നത്